എൻ്റെ തോട്ടത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ട് ഇപ്പം ചെറുതായിട്ട് വരുന്നതേയുള്ളൂ ചെറിയ പൂവായിട്ട് അങ്ങനെയൊക്കെ വരുന്നതേയുള്ളൂ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമന്തി ബന്ദി അതുപോലെ തന്നെ ഡാലിയ അതുപോലെ തന്നെ ഏതാ പറയുക ഇപ്പം ഒരുപാട് ചെടികളുണ്ട് ഇപ്പം ടർട്ടിൽ വൈൻ ആയിക്കോട്ടെ അതുപോലെ ഒരുപാട് ചെടികൾ ഉണ്ട് ഇപ്പോൾ പഴങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നട്ടിരിക്കുന്നത് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട് പിന്നെ സപ്പോട്ട അതുപോലെ തന്നെ വാഴ വാഴ നട്ട് വെച്ച് കഴിഞ്ഞാൽ വാഴപ്പഴം എന്താ പറയുക കദളി ചെങ്കദളി അങ്ങനെ ഒരുപാട് വാഴകൾ നട്ടിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ ലിച്ചി ഒരുപാട് എന്താ പറയുക നമ്മുടെ മറ്റേ എന്താ പറയുക പിസ്താ അതേപോലെ തന്നെ ബദാം മരമുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് മരങ്ങളും അത്യാവശ്യത്തിന് എന്താ പറയുക കുറച്ച് ഒരു ഗാർഡനിങ്ങ് പോലെയാണ് പിന്നെ നെല്ലിക്ക അതുപോലെ തന്നെ ചോളം അങ്ങനെ ഒരുപാട് എന്താ പറയുക ചെടികളും കായ്കളും പിന്നെ പച്ചക്കറി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് നമ്മൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ ഓർഗാനിക് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്